ആ ഹലോ മാം പറയൂ മാരുതീൻ്റെ ഷോറൂം ആയിരുന്നു ആ ഏത് കാറായിരുന്നു നോക്കുന്നത് ഹോണ്ടേൻ്റെയോ ഹോണ്ടേൻ്റെ ഇപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മറ്റേ ഹോണ്ട അമേയ്സ് ഉണ്ട് ഹോണ്ട സിറ്റി ഉണ്ട് ഏതായിരുന്നു മാം നോക്കുന്നത് ഹോണ്ട സിറ്റിയാണോ ഓട്ടോമാറ്റിക്ക് ഉണ്ട് മാനുവൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഏതായിരുന്നു വേണ്ടത് ഫുള്ള് ഓട്ടോമറ്റിക്കാണോ അതിന് ഇരുപത്തിരണ്ട് മുക്കാൽ വരും കേട്ടോ നമ്മുടെ ഷോറൂം റേറ്റ് ഓൺറോഡ് ഇറങ്ങും ആ ഓൺറോഡ് അതായത് നമ്മൾ ടാക്സ് ജി എസ് ടി അത് മറ്റേ ഇൻഷുർ എല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തൻഞ്ച് ചില്ലറ വരും

ആ ലോണ് കിട്ടും ലോണ് കിട്ടും ലോണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആക്കിത്തരും ഏതു ബാങ്കിൻ്റെയാണ് വേണ്ടതെന്നു വച്ചാൽ പറഞ്ഞാൽ മതി ആ ബാങ്കിലേക്ക് നമ്മൾ ആക്കിത്തരാം നിങ്ങളെന്താ കൊണ്ടുവരുന്ന ദിവസം ഒരു സ്ലിപ് എങ്ങനെ അത് ലോണിടുന്ന പോലെയാണ് നിങ്ങളിപ്പോൾ ആദ്യം എത്ര എമൗണ്ട് ആണോ അടയ്ക്കുന്നത് അതു കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയാണ് നമ്മൾ ലോണിട്ടു കൊടുക്കുക നമ്മുക്ക് ബാക്കി അതിൻ്റെ ബാക്കി ചെയ്താൽ മതി കളറ് ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രേ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ഒരു റെഡ് ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് മേറ്റാണ് അത് പക്ഷേ അത് വലിയ രസമുണ്ടാവില്ല കാണാൻ പിന്നെ മിഡില് പക്ഷേ മിഡില് ഓപ്ഷനിലൊക്കെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് മറ്റേ ഗ്ലോസി ബ്ലാക്കുണ്ട് റേറ്റ് മറ്റേ ഗ്രേയ്ക്കാണ് കുറച്ച് റേറ്റ് കൂടുതൽ വൈറ്റിന് കുഴപ്പമില്ല ചെറിയൊരു വ്യത്യാസം വരും രണ്ടായിരം മൂവായിരം രൂപേൻ്റെ വ്യത്യാസമേ വരികയുള്ളു മറ്റേതല്ലെങ്കിൽ ഏതാണ് മൈലേജ് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് പതിനേഴൊക്കെ കിട്ടും ആ കമ്പനി പറയുന്നത് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്താണ് കിട്ടുക ഓട്ടോമാറ്റിക്കിന് മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിന് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും കാരണം നമ്മൾ ഓട്ടം നമ്മളെ ഓട്ടോമാറ്റിക്കിനെക്കാട്ടും നല്ലത് ഇതാണ് മാനുവൽ ആയിട്ട് ചെയ്യുന്നതാണ് അതിന് കൊറച്ചും കൂടി കൂടുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും അല്ല ഫുൾ ഓപ്ഷന് ബാക്കിലും ഉണ്ട് ബാക്കിലുള്ളതുമുണ്ട് ആ കുഴപ്പം ഒന്നുമില്ല ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പൈസ ഇട്ടു തന്നാൽ ഞങ്ങൾ ബുക്ക് ചെയ്തു തരാം ആ മതി ആ ആ ഓക്കെ അയ്യായിരം ആണ് അഡ്വാൻസ് വേണ്ടത് ബാക്കി എമൗണ്ട് പിന്നെ ബുക്ക് ചെയ്തു വണ്ടി എത്തി കഴിയുമ്പോൾ എത്രയാണോ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യുന്നത് ആ പേയ്മെൻ്റ് ചെയ്യുക ബാക്കി ഇ എം ഐ ഇടുക ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ഇ എം ഐ റെഡി ആക്കിത്തരും ഓ ഓക്കെ എന്നാൽ ആ ഓക്കെ